ഒരു ചെടിയെ സംബന്ധിച്ച് അത് എപ്പോൾ നടണം എങ്ങനെ നടണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കാലാവസ്ഥ അടിസ്ഥാനമാക്കിയിട്ടും മണ്ണിൻ്റെ ഘടന അടിസ്ഥാനമാക്കിയിട്ടുമാണ് ഇത് ഒരു കർഷകനെ സംബന്ധിച്ച് അത്ര കാര്യമുള്ള കാര്യമല്ല സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരു കർഷകന് മാത്രമാണ് അതിൻ്റെ സമയവും കാലവുമെല്ലാം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിനൊരു വിളവെടുപ്പ് കാര്യമായ വിളവെടുപ്പ് കിട്ടണമെങ്കിൽ അത് ഇന്ന കാലാവസ്ഥയില് ഇന്ന സമയത്ത് നടണമെന്നുണ്ട് അപ്പം നമ്മള് ആ സമയത്ത് ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് ഒരു ചെടി നടുന്നത് ഇപ്പോള് നമുക്കതിൽ നിന്ന് ഒത്തിരി കായ് ഫലങ്ങൾ ലഭിക്കണം വിളവെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കില് അത് അതിന്റേതായ കാലാവസ്ഥയിൽ തന്നെ നട്ടിരിക്കണം അതിന് അനുയോജ്യമായ വെള്ളവും ജൈവവളങ്ങളും എല്ലാം നൽകണമെങ്കിൽ ആ ഒരു കാലാവസ്ഥയിൽ തന്നെ വേണം ആ ചെടി വളരാൻ പറ്റുകയുള്ളൂ അപ്പോള് അതിനനുസരിച്ച് പുറത്ത് മാർക്കറ്റില് ലാഭം കിട്ടുന്നതുമെല്ലാം ഈ കിട്ടുന്ന വിളവെടുപ്പിൽ നിന്നുള്ള ലാഭമായിരിക്കും അപ്പോള് ഒരു ചെടിയെന്ന് പറയുന്നത് അത് വളരണമെങ്കില് കാലാവസ്ഥ അനുയോജ്യമാണ് മണ്ണിൻ്റെ ഘടന അനുയോജ്യമാണ് ജലത്തിൻ്റെ ലഭ്യത അനുയോജ്യമാണ് അപ്പോള് അതെല്ലാം മനസ്സിലാക്കിയ ഒരു കർഷകന് മാത്രമേ ഒരു ചെടി എപ്പോള് നടണം എങ്ങനെ നടണമെന്നല്ലാം തീരുമാനിക്കാനാവുകയുള്ളൂ